എൻ്റെ പേര് ശിവാനി സുരേഷ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേർ ശ്ശെ നാലുപേരാണുള്ളത് അമ്മേൻ്റെ പേര് ഷീജ അച്ഛൻ്റ പേര് സുരേഷ് അനിയത്തിയുടെ പേര് ശിവന്യ അച്ഛൻ അച്ഛൻ്റെ പണി ഹെഡ് ലോഡിങ്ങ് ആണ് അമ്മ ഹൗസ് വൈഫ് ആണ് പിന്നെ അനിയത്തി പഠിക്കുന്നത് നയൻത് സ്റ്റാൻഡേർഡ് അവൾ സെയ്ൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കന്നത് സോറി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ വീട്ടിൽ എൻ്റെ അച്ഛമ്മയുണ്ട് അച്ഛൻ്റെ തറവാ വീടിൻ്റെ അടുത്താണ് തറവാട് അച്ഛൻ അച്ഛൻ ഒക്കെ മൂന്ന് പിള്ളേരാണ് അച്ഛന് ഒരനിയനും ഒരനിയത്തിയാണുള്ളത് അനിയത്തിയെ കെട്ടിച്ചിരിക്കുന്നത് വടക്കനാട് ബെത്തേരി വടക്കനാടാണ് പിന്നെ അച്ഛൻ്റെ അനിയൻ ഇവിടെ അടുത്ത് തന്നെയാണ് തറവാട്ടിൽ തന്നെയാണ് അവർ ആൻറ്റിയുണ്ട് രണ്ട് മക്കളുണ്ട് അച്ഛമ്മേൻ്റെ പേര് ജാനകിയെന്നാണ് പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ പേര് സുഭാഷ് അച്ഛൻ്റെ വൈ അനിയൻ്റെ വൈഫിൻ്റെ ആൻറ്റിയുടെ പേര് ഷിജില പിന്നെ രണ്ട് മക്കളുണ്ട് ശാലിനീൻ്റെ ശാലിനി ശാലിനും ശാലിനി ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ശാലിൻ എയ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അച്ഛൻ അച്ഛൻൻ്റെ അനിയൻ അച്ഛൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആൻറ്റി ഹൗസ് വൈഫ് തന്നെയാണ് അതെ പിന്നെ അച്ഛൻ്റെ പെങ്ങൾ പെങ്ങളുടെ പേര് സുജാത സുജ ആൻറ്റി ഇവിടെ മിൻറ്റു മാളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പാ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ തന്നെയാണ് വേറെ ഒന്നിനും പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് പിന്നെ അച്ഛൻ രണ്ടു മക്കളുണ്ട് ആവണി ആശ്വിൻ ആവണി ആവണി ചേച്ചി വർക്ക് ചെയ്യാണ് ഹെൽത്ത് നേഴ്സ് ആയിട്ട് അപ് ആശ്വിൻ ഇപ്പം പോളി പഠിക്കുന്നു മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം പിന്നെ എൻ്റെ അമ്മക്കാണെങ്കിൽ അമ്മയ്ക്ക് രണ്ട് ആങ്ങളമാർ ആണുള്ളത് മൂത്ത ആങ്ങള ഷിജു ആൾ ഈ പഞ്ചായത്ത് വണ്ടി ഓടിക്കാനും അങ്ങനത്തെ അത്യാവശ്യ എല്ലാ പരിപാടികളുമുണ്ട് ആൻറി മായ മാമി മായ ഹൗസ് വൈഫ് തന്നെയാണ് രണ്ടു മക്കളാണ് ശിവ നന്ദനയും ഇഷാനിയും മൂത്ത ആൾ റ്റുവൽത് സ്റ്റാന്റാർഡിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പിന്നെ മാമൻ രണ്ടാമത്തെ മാമൻ ഷൈജു മാമൻ ഈ കോൺട്രാക്ടർ പണിയൊക്കെ ആയിട്ട് വൈഫ് കിറ്റക്സ് കമ്പനിയിൽ നിൽക്കുന്നു രണ്ട് മക്കൾ ഇതളും ഇഷാനും ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒരാൾ തേഡ് സ്റ്റാൻഡേർഡിലും ആണ് പഠിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് സെയ്ൻറ്റ് മേരീസ് ആണ് അവിടുത്തെ ഫ്രണ്ട്സിനെ ആയിട്ട് ഇപ്പോഴും അത്യാവശ്യം കോൺടാക്ട് ഉണ്ട് അപ്പോൾ അന്നത്തെ അപ്പോഴൊന്നും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ശിവാനി കാർത്തിക കൃഷ്ണാനന്ദ അങ്ങനത്തെ സാനിയ സ്റ്റേനിയ അങ്ങനത്തെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അഞ്ച് തൊട്ട് ഞാൻ റ്റ്വൽത്ത് വരെ പഠിച്ചത് വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടെ എനിക്ക് ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതില് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊന്നും ആരും ഇല്ലായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടൂനാണെങ്കിൽ ആദിത്യ സന്ധ്യ ഹെൽന പിന്നെ ഞാൻ ട്യൂഷൻ ക്ലാസിൽ പോയി ചേർന്നു അവിടെ നിന്ന് എനിക്ക് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ആദിത്യ ആൻ മരിയ എലിസബത്ത് അങ്ങനെ രണ്ടു മൂന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് നഴ്സിങ്ങിനാണ് അപ്പം അവിടെ എനിക്ക് അഞ്ച് അഞ്ചല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നാലും എൻ്റെ റൂം മേറ്റ് ആയിട്ട് എന്നോട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അബിത ദീപിക അനുശൃതി ആശ്രി ഇത്രയും പേരാണ് അപ്പം ഇത്രയാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുടുംബവും